ഹാലോ ഞാൻ ഫർണിച്ചർ ഷോപ്പീന്നായിരുന്നു വിളിക്കുന്നത് അപ്പം നമുക്കൊരു തടി ആ അത് നമുക്കീ ഫർണീച്ചറൊക്കെ ഉണ്ടാക്കാനായിട്ട് വേണ്ടീട്ടേ നമ്മളത് ഉണ്ടാക്കുന്നതും കൂടെയാണ് അപ്പം നിങ്ങളെടുത്ത് തടീ ഏതാ ഇപ്പം നല്ലയിത് ഞങ്ങൾക്ക്

ആഞ്ഞിലി ആഞ്ഞിലി ഉണ്ടോ ഇപ്പം എ ഇപ്പം ഈ ഏറ്റവും കൂടുതലോടുന്നത് നമുക്കേതാണ് മഹാഗണിയാണോ ഈട്ടീം തേക്കുമാണല്ലേ അതാവുമ്പം എങ്ങനെയാണ് തേക്കേതാണ് കൂപ്പ് തേക്കാണോ അതോ നാടൻ തേക്കാണോ

ഓക്കെ ഓക്കെ നിങ്ങളത് എങ്ങനെയാണ് തടി ഇങ്ങനെ ഹോൾ സേ ഇങ്ങനെ എത്തിച്ച് കൊടുക്കോ അതോ നമ്മളത് വന്ന് കണ്ട് നമ്മൾ തന്നെ എടുത്തോണ്ട് പോരേണ്ടതാണോ നമ്മൾ വെട്ടി എടുക്കേണ്ടതാണോ

നിങ്ങളത് നമുക്ക് സേയ്ലാക്കിത്തരുവോ അതോ നമ്മൾ വന്നാലിത് എടുത്തോണ്ട് പോരണോ ഓക്കെ ഓക്കെ ഓക്കെ ട്രാവല്ലിങ് ചാർജക്കേ വ്യത്യാസം വരുമായിരിക്കുവല്ലേ അതിന്റെ വ്യത്യാസം വരുമായിരിക്കുവല്ലേ അതെങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ മുറിച്ച് തര്വോ അതോ നമ്മൾ മുറിക്കാൻ ആളുകളെ കൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ കാത് ഓക്കെ കാതലാണോ അതോ വെള്ള വെള്ളവോ വാങ്ങിച്ചാൽ കാതലില്ല വെള്ളയാണെങ്കിൽ കൂടുതൽ കുത്തനെയെടുക്കും അതുകൊണ്ടാ ചോദിച്ചത് കാതലുള്ളതാണോ ഓക്കേ ഓക്കേ ഓക്കേ ആഞ്ഞിലിയാണേലും ആഞ്ഞിലി മൂത്തതായിരിക്കുമോ കിട്ടുന്നത് അതോ പിഞ്ച് തടി ആയിരിക്കുമോ നമുക്ക് കിട്ടുന്നത്

ഓക്കെ ഓക്കെ ആ ഓക്കേ അപ്പം നിങ്ങളത് ചെയ്യുന്നതാണ് അല്ലേ നിങ്ങൾ ചെയ്യുന്നത് ആയോണ്ട് അപ്പം തടീടിത് എന്താന്ന് വെച്ചാൽ അറിയാമല്ലോ അപ്പം നമുക്ക് എപ്പം വേണേലും അവൈലബിളാണോ അതോ നമുക്ക് നേരത്തേ നമ്മളോഡറ് തരണോ ആ ഇത് നമുക്ക് തടി മാ നമുക്ക് തടി മതി നമ്മൾ നമുക്ക് ആശാരി ഒക്കെ ഉള്ളതാണ് നമുക്ക് ആശാരി ഉള്ളതാണ് നമ്മൾ തന്നെ പണിതോളാം ആ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾക്ക് കൂടുതലായിട്ടിച്ചിരി തേക്കിന്റേം പിന്നെ നമ്മുടെ ഇത് ഈട്ടിയാണ് വേണ്ടത് പിന്നെ മഹാഗണിയുണ്ടെങ്കിൽ അതും നമ്മൾ എടുത്തോളാം കേട്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ വെൽക്കം